ആ ഇത് റോളക്സ് റസ്റ്റ്റ്റോറൻറ്റ് അല്ലേ ഇപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഊണ് ആണ് ആ ആ ഓക്കേ ഓക്കേ ആ ഞങ്ങൾക്ക് നാടൻ ഐറ്റംസ് ആണ് കുറച്ചുംകൂടെ വേണ്ടത് അതായത് ഇപ്പോൾ ഊണിന്റെ കൂടെ ഇങ്ങനെ പച്ചടി ആ കപ്പയും മീനും കഴിക്കുന്നവരും ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ അപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പം അവിടെ വയനാട്ടിലേക്ക് വരുവാണ് അപ്പം അതും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എല്ലാ എല്ലാ രീതിയുലുള്ള ഫുഡും കിട്ടും അല്ലേ പിന്നെ ഞാൻ ഇല്ല ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഉള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത് അപ്പം മീൻ മീൻ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് അവിടെ പുഴമീൻ ഒക്കെ കിട്ടുവോ ഓക്കേ ഓക്കേ ആ ആ നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഓക്കേ ഓക്കേ നമുക്ക് ഇപ്പോൾ ബ്രേക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റൂമിലേക്ക് എത്തിക്കുവോ എങ്ങനെയാണ് കൊടുക്കുന്നുണ്ട് അല്ലേ ആ ആ ഓക്കേ പിന്നെ നമുക്ക് ഇപ്പോൾ വെജ് ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് ഊണിൻ്റെ കൂടെ വരും ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് എനിക്ക് റൂം കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് റെഡി ആക്കി വെച്ചേക്ക് ഓക്കേ എന്നാൽ